ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് സ്റ്റാമ്പ് കളക്ഷനും നാണയ കളക്ഷനും ഒക്കെ വളരേ താല്പര്യമുള്ള ഹോബികളായിട്ടായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് അന്ന് ഒരുപാട് രാജ്യങ്ങളുടെ സ്റ്റാമ്പ്കളും നാണയങ്ങളുവൊക്കെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ ശേഖരിച്ചിരുന്നത് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കസിൻസ്സും സുഹൃത്തുക്കളുമൊക്കെ വഴി അവരിവിടെ വരുമ്പോൾ നമ്മള് പ്രധാനായിട്ടും ആവശ്യപ്പെടുന്നൊര് കാര്യം ആ രാജ്യത്തിൻ്റെ സ്റ്റാമ്പ്കള് ഉപയോഗിച്ചതോ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള സ്റ്റാമ്പുകളും അവിടുത്തെ ചെറിയ നാണയങ്ങളൊക്കെ കൊണ്ട് തരണമെന്നായിരുന്നു വർഷങ്ങളോളം നമ്മൾ ഈ ഒരു ഹോബി തുടരുകയും ഒര് വലിയ സ്റ്റാമ്പ് കളക്ഷൻ തന്നെ ഉണ്ടാക്കാനായിട്ട് എൻ്റെ ചെറുപ്പത്തിലെനിക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് എന്നേപ്പോലെയുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ഉള്ള സ്റ്റാമ്പ് കളക്ഷനും കോയിൻ കളക്ഷനും ഒക്കെ ഉള്ള രീതികളുണ്ടായിരുന്നു ഏകദേശം മുവായിരത്തിലധികം സ്റ്റാമ്പുകൾ എനിക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നീട് പല രാജ്യങ്ങളുടേയും നാണയങ്ങളും ഇതുപോലെ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് അന്ന് നമ്മളേ സംബന്ധിച്ചിടത്തോളം മറ്റ് സോഷ്യൽ മാദ്ധ്യമങ്ങളോ ടെലിവിഷൻ റേഡിയോ പോലുള്ള മാധ്യമങ്ങളുടെയൊക്കെ അഭാവം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു നമുക്ക് വളരെ എഞ്ചോയ് ചെയ്യാൻ പറ്റുന്ന ഒര് ശീലമായിട്ടായിരുന്നു സ്റ്റാമ്പ് കളഷനെ ഒക്കെ നമ്മളന്ന് കണ്ടിരുന്നത് എങ്കിലും ഇൻ്റർനെറ്റിൻറ്റേയും സാമൂഹ്യ മാദ്ധ്യമങ്ങളുടെ ഒക്കെ ഒരുപാട് വരവോട് കൂടി ഈ സ്റ്റാമ്പ് കളഷൻ എന്നുള്ള ഒര് ഹോബി അന്യം നിന്ന് പോകാനുള്ള ഒര് സാഹചര്യമുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാല് നമുക്കിപ്പോഴ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ലെറ്ററുകളോ അല്ലെങ്കില് പോസ്റ്റ് കാർഡുകളോ ഒന്നും ആവശ്യമായി വരുന്നില്ല ഇല്ലൻറ്റ്കളൊന്നും ആവശ്യമായി വരുന്നില്ല മൊബൈല് വഴിയും മറ്റ് സാമൂഹ്യ മാദ്ധ്യമങ്ങൾ വഴിയും ഇമെയിൽ വഴിയൊക്കെയാണിപ്പൊഴെല്ലാവരും കമ്മ്യൂണിക്കേഷൻ നടത്തുക അത് വികസനത്തിൻറ്റൊര് ഭാഗമായിട്ടാണ് ഇതെല്ലാം കടന്ന് വന്നത് അതുകൊണ്ട് തന്നെ സ്റ്റാമ്പിൻ്റെ ഉപയോഗം വളരേ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത് വളരെ ചുരുക്കം ഇപ്പോഴ് ആണെങ്കിൽപ്പോലും കൊറിയർ സർവീസ്സ്കളും തപാൽ പാഴ്സലുകൾ ഒക്കെ വന്നപ്പോൾ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അതിനനുവദികമായവര് പ്രിൻ്റെട്ത്ത് സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റാമ്പ് കളക്ഷൻ ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ വലിയ പ്രാധാന്യമുള്ളൊര് കാര്യമല്ല നിലവില് ഇന്നത്തേ തലമുറക്ക് സ്റ്റാമ്പ് എന്താണെന്ന് പോലും അറിവില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും അന്ന് വളരേ പ്രാധാന്യത്തോട് കൂടിയും താല്പര്യത്തോട് കൂടിയും ചെയ്തിരുന്ന ഒര് ഹോബിയായിരുന്നു ഈ സ്റ്റാമ്പുകൾ ശേഖരിക്കുക നാണയങ്ങൾ ശേഖരിക്കുക എന്നുള്ളതല്ലാം പിന്നെ സാഹചര്യവശാൽ ഈ സ്റ്റാമ്പുകളെല്ലാം പണ്ട് നമ്മളിതിൻറ്റൊര് താല്പര്യം കുറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ കൂടുതൽ കളഷൻ ഉള്ളൊരു വ്യക്തി വന്ന് നമ്മൾ ബന്ധപ്പെടുകയും പുള്ളിക്ക് സ്റ്റാമ്പ്കളെല്ലാം കൊടുത്തേക്കാവോ എന്ന് ആവശ്യപ്പെടുകയും അത് അതിന് പ്രതിഫലമായിട്ടൊരു പൈസ നൽകി ആ സ്റ്റാമ്പുകളെല്ലാം പുള്ളി വാങ്ങിച്ചോണ്ട് പോകുകയും ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ സ്റ്റാമ്പ് കളക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മളേക്കാലും വളരെ വിപുലമായൊരു സ്റ്റാമ്പ് ശേഖരണമുണ്ടായിരുന്ന വ്യക്തിയായത് കൊണ്ടും പുള്ളി തന്ന ഓഫറ് നമുക്ക് വളരേ ഇൻട്രസ്റ്റിങ്ങായിരുന്നത് കൊണ്ടും അന്ന് കളക്ട് ചെയ്ത സ്റ്റാമ്പുകളും നാണയങ്ങളും എല്ലാം പുള്ളിക്ക് ആ വ്യക്തിക്ക് കൊടുക്കുകയാണുണ്ടായത്